ഞങ്ങൾ ഇവിടെ നിന്ന് യാത്ര യാത്ര ചെയ്യുന്ന യാത്ര പോകുന്ന ബസ്സ് നല്ല ഒരു ബസ്സാണ് അത് അതിൻ്റെ സീറ്റുകളൊക്കെ നല്ല സുഖമായിട്ട് ചാരി കിടന്നു പോകാം സാധനങ്ങളൊക്കെ മുകളിൽ എടുത്ത് വയ്ക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ പിന്നെ ജനാലകളിൽ കൂടെ നോക്കിയാൽ നല്ല കാഴ്ചകൾ കാണാൻ പറ്റും പ്രകൃതി ഭംഗി ആസ്വാധിച്ചു കൊണ്ട് സുഖമായി സീറ്റിലേക്ക് ചാരി ഇരുന്നു കൊണ്ട് നമ്മൾക്ക് കാഴ്ചകൾ കണ്ടു യാത്ര ചെയ്യാൻ പറ്റും ഡ്രൈവറാണെങ്കിൽ നല്ല സൂഷ്മതയോടു കൂടിയാണ് വണ്ടി ഓടിക്കുന്നത് അപ്പം നമ്മൾക്ക് എല്ലാം നല്ല രീതിയിൽ യാത്ര ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട് ഇപ്പം ഇവിടെ നിന്ന് ഒരു കോട്ടയത്തേക്ക് ഒരൂ ഒരു യാത്ര പോകുകയാണെങ്കിൽ ഫാസ്റ്റ് പാസഞ്ചറ് ബസ് നല്ല രീതിയിൽ നല്ല രീതിയിൽ നമ്മളെ ഉൾക്കൊണ്ടു കൊണ്ട് ഡ്രൈവറെ ആൾക്കാരെ കെയർ ചെയ്തു കൊണ്ട് തന്നെ വണ്ടി ഓടിച്ചു നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു പ്രകൃതി ഭംഗി ആസ്വദിക്കാനും മുന്നോട്ട് ചെല്ലും തോറും തേയിലത്തോട്ടങ്ങളും ഏലത്തോട്ടങ്ങൾ കടന്നു തേയിലത്തോട്ടങ്ങളും പിന്നെ റോഡിന് ഇരുവശമുള്ള കെട്ടിടങ്ങളും കടകളും എല്ലാം കണ്ടു നല്ല ഭംഗിയായിട്ട് ഉള്ള കാഴ്ചകൾ കണ്ട് നമ്മൾക്ക് സീറ്റിൽ ചാരി ഇരുന്നു യാത്ര ചെയ്യാൻ സാധിക്കുന്നുണ്ട് അപ്പം പിന്നെ സുഖമായി യാത്ര ചെയ്യാനും ഉറക്കം വരുന്നവർക്ക് ചാരിക്കിടന്നു ഉറങ്ങാനുമൊക്കെ സാധിക്കുന്നുണ്ട് വളവുകൾ വളവുകളും ഇറക്കങ്ങളും ഒക്കെ തിരിഞ്ഞു പോകുമ്പോൾ ബസ്സ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി

സ്നേഹത്തിൽ ഒന്ന് മനുഷ്യനോട് യാത്രക്കാരോട് ഇടപെടുന്നു അങ്ങനെ നല്ല ഒരു ഫാസ്റ്റ് ഫാസഞ്ചർ ബസിൽ നല്ല ഒരു യാത്രയാണ് പോകാൻ പറ്റുന്നത് പാസഞ്ചർ ബസ്സിൽ ഒരു ബസ്സിൽ യാത്ര പോവാൻ എനിക്ക് ഇഷ്ടമാണ് കാരണം ഈ സൈഡ് സീറ്റിൽ ഇരുന്നു കൊണ്ട് പുറത്തോട്ട് നോക്കുമ്പോൾ വളവുകളും മരങ്ങളും എല്ലാം ഓടി ഓടി പോകുന്നത് കാണാം അതൊരു നല്ല ഒരു കാഴ്ചയാണ് അങ്ങനെ നല്ല ഒരു പിന്നെ നല്ല ഒരു യാത്ര പോയി വന്നു ലക്ഷ്യസ്ഥാനത്തെത്തി നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സഹായിക്കുന്നു ബസ് യാത്ര ആനന്ദകരവും സുഖകരവുമാണ് അതെനിക്ക് ഇഷ്ടവുമാണ്